ഹലോ ഇത് വാഴപ്പള്ളി കൃഷിഭവനാ ആ ഓഫീസറാ സാറേ ഞാന് സാറിൻ്റെ കൃഷിഭവൻ്റെ പരിധിയിലുള്ളൊരാളാണ് ഈരത്ര ഇഞ്ചംതുരുത്ത് പാടശേഖരത്തിലെ ഒരു കർഷകനാണ് ഇപ്പോഴീ ശക്തമായ ഈ മഴമൂലം എൻ്റെ കൃഷിയിടത്തിൽനിന്നും നെല്ല് കൊയ്തെടുക്കാൻ സാധിക്കുന്നില്ല കൃഷിയിടം നശിച്ചു എന്ന് പറയാം കാരണം വെള്ളം കയറി എല്ലാം വെള്ളത്തിനടിയിലായി ഇനിയത് കൊയ്തെടുക്കുന്നതിന് സാധിക്കാത്തെയവസ്ഥ കാരണം മെഷിനിറങ്ങത്തില്ല ഞാനതിന് ഒരു ക്ലെയിം സമർപ്പിക്കുന്നതിനാഗ്രഹിക്കുകയാണ് ആ ഇൻഷൂറൻസൊക്ക ചെയ്തിട്ടുള്ളാണ് അപ്പോള് അതിനാവശ്യമായ രേഖകളിൽ സാറിൻറ്റെയൊരു സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അപ്പോഴത് സ്ഥലം സന്ദർശിച്ച് ഒരൂ സർട്ടിഫിക്കറ്റ് നൽകണം അതോടൊപ്പം ഈ യോഗ്യത ഉള്ളതാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു റെക്കമെൻറ്റേഷനും എൻ്റെ അപേക്ഷയിൽ നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്